ആ ഹലോ എന്താ സാറേ ആ അതെ അതെ അത് തന്നെ ഞാൻ ഇവിടുത്തെയൊര് ഗൈഡാണ് ടൂറിസ്റ്റിനെയൊക്കെ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ അതിനൻസ് അതിനനുസരിച്ച് എന്തേലും ചെയ്ത് തരുന്നതായിരിക്കും ആ സാറെ ആ

ആണോ സാറിന് ഏത് തരത്തിൽ ഉള്ള സ്ഥലങ്ങൾ ഒക്കെയാണ് നമുക്ക് ഇവിടെ കാണണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച്

ആ പറ സാറെ റബ്ബർ എന്ന് പറയുമ്പോൾ കൂടുതലും രണ്ട് ജില്ലകളിലാണ് സാറെ കൂടുതലാതായിട്ട് ഉണ്ടാകാറ് കൂടുതലും പത്തനംതിട്ട ജില്ലയിലും പിന്നെ ഉള്ളത് കോട്ടയം ജില്ലകളിലും ഈ രണ്ട് ജില്ലകളിലും മെയ്നായിട്ട് റബറ് ൻ്റെ കൾട്ടിവേഷൻ കൂടുതലായിട്ട് ഉള്ളത് അപ്പം സാറ് ഇപ്പം സാറു വന്നാൽ സാറിനെ ഇപ്പോൾ സാറ് സാറിൻ്റെ ഫാമിലിയായിട്ട് വന്നാൽ ഇപ്പോൾ നമ്മള് ഫുള്ളായിട്ടൊര് പാക്കേജ് പോലെ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സാറിന് ഇഷ്ട്ട ഇങ്ങനെ നമുക്ക് കൊണ്ട് പോകുന്നതായിരിക്കും ആ സാറിങ്ങോട്ട് വന്നാൽ മാത്രം മതി പിന്നെ ബാക്കി ഉള്ള ഡീറ്റെയിൽസ് വന്നതിന് ശേഷം നമ്മള് എടുത്ത് സാറിനെ എല്ലാം എങ്ങനെയാണ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മള് പറഞ്ഞ് തരുന്നതായിരിക്കും താഴെ കൂടുതൽ സാർ പോകുമ്പോൾ സാറിൻ്റെ ഫാമിലിയുടെ കൂടെ ഒര് ഗൈഡിനേയും കൂടെ നമ്മള് വിട്ട് തരുന്നതായിരിക്കും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ആയിട്ട് ആ അതൊക്കെ ഉണ്ട് സാർ പക്ഷെ നമുക്ക് റേയ്റ്റ് എന്താണ് നമ്മള് സാധാരണ ഇതിനേക്കാളും കുറച്ച് റേയ്റ്റ് കൂടുവായിരിക്കും കാരണം നമ്മളിങ്ങനെ കൂടുതൽ എക്സ്ട്രാ നമ്മള് എടുക്കുവല്ലെ ഇങ്ങനത്തെ ഓരോ ക്ലാസ്സും കാര്യങ്ങളൊക്കെയായിട്ട് അപ്പം കൂടുതലും ചെറിയ ഒത്തിരി കൂടത്തില്ല പക്ഷെ കുറച്ച് റേയ്റ്റ് കൂടുവായിരിക്കും അത് കുഴപ്പമില്ല സാറിന് നമ്മള് മാക്സിമം കുറച്ച് തന്നെ നമ്മള് ചെയ്യത്തുള്ളൂ നമ്മള് ഇല്ല നമ്മള് കുറച്ച് തന്നെ ചെയ്യത്തുള്ളൂ സാറ് വിചാരിക്കുന്നതിൻ്റെ അത്രയും വലിയ റേയ്റ്റൊന്നുവില്ല നമ്മള് കുറച്ച് ചെറിയ രീതിയിലെ നമ്മള് ചെയ്യത്തുള്ളൂ ആ ആ കോട്ടയത്തും പത്തനംതിട്ടയിലോക്കെയാണ് മെയിൻ ആയിട്ട് റബ്ബറ് കൃഷി കൾട്ടിവേഷനും കൂടുതലായിട്ട് ഉണ്ടാവുന്നത് അതിൻ്റെ ക്ലാസ്സൊക്കെ ഉണ്ട് സാറെ അതൊക്കെ നമുക്ക് എല്ലാം നമുക്ക് റെഡിയാക്കാം അതെ അതെ സാറും സാറിൻ്റെ ഫാമിലിയായിട്ടാണോ അതോ ഒറ്റയ്ക്കായിട്ട് ഒക്കെയാണോ വരുന്നത് അതോ അതെ അതെ ഒറ്റയ്ക്കായിട്ടാണോ വരുന്നത് അതോ ഫാമിലിയായിട്ടൊക്കെയാണോ വരുന്നത് ആ അപ്പം സാറ് വന്നാൽ മതി ഞങ്ങള് എന്തായാലും സ്കൂളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ വന്നിട്ട് പറഞ്ഞ് തരാം നമ്മൾ ഈ ഫോണിൽ കൂടെ സംസാരിക്കുന്നതിനേക്കാളും നേരിട്ട് വന്ന് സംസാരിക്കുമ്പോഴായിരിക്കുമ ല്ലോ നമുക്ക് കൂടുല് മനസ്സിലാവുന്നത് ആ പിന്നെ ഞങ്ങളിതിനെക്കുറിച്ചെക്കെയായിട്ടൊരു ഇപ്പം ഈ നമുക്കൊരു ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് സാറിനെ അത് വാട്സാപ്പിൽ ഇത് വാട്ട്സപ്പിന്റെ ആണോ സാറെ അങ്ങനെയാണെങ്കിൽ അയച്ച് തരാം വാട്സാപ്പിലകത്തോട്ട് അപ്പം വാട്ട്സാപ്പിൽ ഞാൻ അങ്ങോട്ട് അയച്ച് തരാം നമ്മള് കൊടുക്കുന്ന സർവീസസും കാര്യങ്ങളും നമ്മള് കൂടുതൽ അതിനകത്ത് ആയിരിക്കും കൊടുക്കുന്നുണ്ടായിരിക്കുന്നത് അപ്പം സാറിന് ഞങ്ങളൊര് പി ഡി എഫ് ആയിട്ട് ഞങ്ങള് അയച്ച് തരാം സാറിന് ഓക്കെ അപ്പോൾ സ ആ സാറെ നമ്മൾ ഇവിടെ തിരുവല്ലയിൽ ആണല്ലൊ നമ്മുടെ ഓഫീസ് അപ്പം കൂടുതൽ നമ്മള് പത്തനംതിട്ടയായിരിക്കും അതില് നമ്മള് ഫോക്കസ് ചെയ്യുന്നത് ആ പത്തനംതിട്ട തിരുവല്ല സൈഡെക്കെയായിരിക്കും നമ്മള് കൂടുൽ ഫോക്കസ് ചെയ്യാൻ തിരുവല്ല ചങ്ങനാശ്ശേരി ഒക്കെ ആയിരിക്കും ആദ്യം ഫോക്കസ് ചെയ്യുന്നത് പിന്നെ ആ അതിന് ശേഷം പിന്നെ കോന്നി ആ നമ്മുടെ റാന്നി ഭാഗമൊക്കെ അങ്ങോട്ട് ആ സൈഡ് ഫുള്ള് പോയിട്ട് നമ്മളതിന് ശേഷം പിന്നെ നമ്മള് ആ അവിടെ ഉണ്ട് പിന്നെ കൊ അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞിട്ട് ഒക്കെ നമ്മള് കോട്ടയം സൈഡിലോട്ട് നമ്മളങ്ങ് പോകും കോട്ടയം കാഞ്ഞിരപ്പള്ളി ആ അതാ അതാ നമ്മുടെ ഒരു പ്ലാനിങ് വരുന്നത് എന്നിട്ട് അതെയതെ നമുക്കെല്ലാം അതിൻ്റെ ഫുഡാ ഫുഡിൻ്റെ കാര്യങ്ങളോർത്തൊന്നും സാറ് പേടിക്കണ്ട അതിൻ്റെ എല്ലാം നമ്മള് എല്ലാം നമ്മള് ഈ പാക്കേജിന് അകത്ത് നമ്മള് ഉൾപ്പെടുത്തിയിട്ടുണ്ട്

അതെ അതെയതെ ഞങ്ങളെല്ലാം വണ്ടിയും ഡ്രൈവറായാലും എന്തുവാണേലും സാ സാറിൻ്റെ എന്ത് സാറിനിഷ്ട്ടം എന്തൊക്കെയാണ് വേണ്ടത് അതൊക്കെ നമ്മള് ചെയ്ത് തരും അതെ അതെ ആ ഗൈഡായിട്ട് ഞാനും ഉണ്ടായിരിക്കും കൂടെ അതുകൊണ്ട് സാറൊന്ന് കൊണ്ടും പേടിക്കണ്ട എന്തെങ്കിലും ഡൗട്ടുകള് എന്തെങ്കിലും ഉണ്ടേൽ ഈ പറഞ്ഞാരത്തെ ഞാനും ഉണ്ടായിരിക്കും കൂടെ അതെ അതെ സാറിപ്പോൾ പറ്റുന്ന ദിവസം സാറിപ്പം എന്നാൽ എന്ന് വരാനാണ് സാറു ഉദ്ദേശിക്കുന്നത്

അതെ അതെ സാറിൻ്റെ ഓഫീസിൻ ഞങ്ങളുടെ ഓഫീസിൻ്റെ ലൊക്കേഷൻ സാറിന് ഞാൻ വാട്ട്സപ്പിലോട്ട് അയച്ച് തരാം അപ്പം സാറിന് പെട്ടെന്ന് എത്താമല്ലൊ ആ ഓക്കെ സാറെ അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പം ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ ശരി